ഇപ്പോൾ വിദ്യാഭ്യാസമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഇതാണ് അപ്പോൾ കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു സിറ്റിയായിട്ടുള്ള ഒരു സ്ഥലമായത് കൊണ്ട് നമുക്ക് വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ഒരേപോലെ കൊണ്ട് നടക്കാൻ വേണ്ടി പറ്റും പിന്നെ നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചത് കൊണ്ട് നമുക്ക് ജോലി കിട്ടണമെന്നില്ല അപ്പോൾ അതൊരു മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പി എസ് സി യൊക്കെ രണ്ടും എക്സാമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ജോലി കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കൂടുതലായിട്ടും സർക്കാർ നല്ല രീതിയിലുള്ള തൊഴിലധി തൊഴിൽ കാര്യങ്ങളൊക്കെ നമ്മൾ യുവജനങ്ങളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള തൊഴിലവസരവും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് മെച്ചപ്പെടുത്താനുള്ള ഒരോ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കോളും അപ്പോൾ അവർ അവർക്ക് കൂടുതലായിട്ടും നല്ല രീതിയിലുള്ള തൊഴിൽ കാര്യങ്ങളൊക്കെ പി എസ് സി വഴിയാണെങ്കിലും അല്ലാണ്ടുള്ള കാര്യങ്ങളൊക്കെ വഴിയാണെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുക അപ്പം നല്ല രീതിയിലുള്ള ജോലിക്ക് ജോലിക്കാരെയും എല്ലാ കാര്യങ്ങ ആൾക്കാരെയും വേണ്ടി കിട്ടുന്നതാണ് പിന്നെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പലരീതികളിലും ഇപ്പോൾ ഉചിതമായ പരിശീലനമൊക്കെ ലഭിച്ചവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം